കുളത്തില് നീന്താൻ വേണ്ടി പോയപ്പോള് ആദ്യമായിട്ട് നീന്തല് പഠിച്ചത് എനിക്കൊരു ചേട്ടനാണ് പഠിപ്പിച്ചുതന്നത് ആദ്യമേ നീന്താൻ പഠിച്ചത് സാധാരണ നീന്തലൊക്കെയാണ് പിന്നതിന് ശേഷമാണ് ഞാൻ മുങ്ങി നീന്താനും അങ്ങനൊക്കെ ഞാൻ പഠിച്ചത് അതിന് മുമ്പെനിക്ക് വെള്ളത്തിലിറങ്ങാൻ ചെറിയ ചെറിയ പേടികളൊക്കെ ഉണ്ടായിരുന്നു അത് സ്വാഭാവികം പക്ഷെ എനിക്ക് പഠിപ്പിച്ച് തന്നൊരു ചേട്ടനാണ് ആ ചേട്ടനാണെങ്കില് ആദ്യമെന്നെ സാധാരണ രീതിയിലുള്ള നീന്തലാണെന്നെ പഠിപ്പിച്ചത് ആദ്യമെ മേളിക്കിടന്ന് കാലിട്ടടിച്ചിങ്ങനെ പഠിക്കാനാണ് എൻ്റടുത്താച്ചേട്ടൻ ചേട്ടൻ പറഞ്ഞത് അതിനുശേഷം അതിനുശേഷം കൈയിട്ടടിക്കാൻ പറഞ്ഞു ആ ചേട്ടനെനിക്ക് സപ്പോട്ടൊക്കെ ചെയ്ത് കൈയ്യിട്ടടിച്ച് നീന്താന് പറഞ്ഞു അങ്ങനാണ് ഞാനങ്ങനത്തെ പിന്നെ പകുതി വരെ ഞാൻ മേപ്പോട്ടിങ്ങനെ പൊങ്ങി നീന്താൻ ചെറുതായിട്ടാണ് പഠിച്ചത് അതിനുശേഷം അതിനുശേഷാണ് ഞാൻ മുങ്ങി നീന്താൻ ആയിട്ട് പഠിച്ചത് അതിനുമുമ്പേ സാധാരണ എനിക്ക് നീന്താനൊന്നും വലിയ എനിക്കറിഞ്ഞൂടായിരുന്നു എനിക്ക് നീന്താനൊന്നും വലുതായിട്ടറിഞ്ഞുകൂടായിരുന്നു ഞാനതിന് മുമ്പെ ഞാന് വെള്ളത്തില് ഇങ്ങനെ കാലിട്ടിങ്ങനെ മുക്കി ഇരിക്കാറാണ് പതിവ് അതിന് മുമ്പ് എനിക്ക് എനിക്കിങ്ങനെ ചേട്ടൻ പഠിപ്പിച്ചുതന്നപ്പോഴാണ് ഞാനിങ്ങനെ നീന്തല് പ്രോപ്പറായിട്ടല്ല അല്ലാതെ ഞാന് നല്ലതുപോലെ പഠിച്ചത് അതിന് മുമ്പെനിക്ക് നീന്താനൊന്നും വലിയൊരു ഇതില്ലായിരുന്നു അങ്ങനാണ് ഞാന് പഠിച്ചത് ആ ചേട്ടനെനിക്ക് പിന്നെ പിന്നെ അതിനുശേഷം അടിത്തട്ട് മുങ്ങി ഇങ്ങനെ കുളത്തിലേക്ക് മുങ്ങി നീന്താന് പഠിപ്പിച്ചു അതിനുശേഷം കുറേച്ചെ കുറേച്ചെ കുറച്ച് നീന്തലിൻ്റെ എന്തൊക്കെ കാര്യമുണ്ടോ അങ്ങനെ പഠിപ്പിച്ചുതന്നു പിന്നങ്ങനാണ് ഞാൻ നീന്താന് പഠിച്ചത്